ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്ത് രണ്ട് രണ്ടു രണ്ടായിരത്തി പതിനഞ്ച് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പത്തൊൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് അഞ്ച് അഞ്ച് രണ്ടായിത്തി ആറ്